ബീര്ബല് കഥകള് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ബുദ്ധിപരമായ ധാരാളം കാര്യങ്ങളതിനകത്ത് നമുക്ക് കാണാന് സാധിക്കും അകര്പ്പ് അക്ബര് ചക്രവര്ത്തിയുടെ പല പ്രശ്നങ്ങളും ധീരതയോടെ നേരിട്ട് അതിന് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അല്ലെങ്കില് നല്ല നല്ലതായൊരു സൊല്യൂഷന് കാണിച്ചു കൊടുക്കുന്ന കഥകൾ തന്നെയാണ് ബീര്ബല്ക്കഥകള് കഥ നിറയെ നിറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു പുസ്തകമായിട്ടു തന്നെയാണെനിക്ക് തോന്നിയിരിക്കുന്നത് ചില സന്ദര്ഭങ്ങളിലൊക്കെ ഞാനാലോചിക്കാറുണ്ടാ പുസ്തകത്തിലെങ്ങനെയാണ് ബീർബലിത്രത്തോളം തന്മയത്വത്തോടെ ആ ഒരു കാര്യം തെളിയിച്ചു രാജാവിന് എസ് രായ അക്ബർ ചക്രവർത്തിയില് നിന്ന് ധാരാളം സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്കായിരുന്നെങ്കിലങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന് പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കൽ രാജാവ് രാജാവിനെല്ലാ കാര്യങ്ങളും പഠിക്കണം എല്ലാവരിൽ നിന്നും എല്ലാ കാര്യങ്ങളും പഠിക്കണം അതു കൊണ്ട് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളെയും എല്ലാ ജോലി ചെയ്യുന്ന ആളുകളെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുവാനായിട്ട് ബീര്ബലാവശ്യപ്പെടുന്നുണ്ട് അക്ബർ ചക്രവർത്തി ആവശ്യപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് ബീര്ബല് എല്ലാ ജോലിക്കാരെയും എല്ലാ തരത്തിലുള്ള ഡോക്ടർമാരും അദ്ധ്യാപകരും കൈത്തൊഴിൽക്കാരും പെയിന്റിങ്ങുകാരും എല്ലാ തരത്തിലുള്ള ആളുകളും കൊട്ടാരത്തിലെത്തുകയും അവരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള സാഹര്യങ്ങളൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊരു വൃദ്ധയായ സ്ത്രീ മാത്രമാണ് രാജാവിനക്ബർ ചക്രവർത്തിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിനൊരിക്കലും ഒരിക്കലും നമുക്കൊന്നും പഠിച്ചു തീരുവാന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നമുക്കൊരിക്കലുമൊന്നും പഠിച്ചു തീരുവാൻ സാധിക്ക് സാധിക്കില്ല എന്ന് ആ വൃദ്ധയായ സ്ത്രീ കാണിച്ചു കൊടുക്കുകയാണ് ആ വൃദ്ധയായ സ്ത്രീയിലൂടെ ബീർബൽ ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കുകയാണക്ബര് ചക്രവര്ത്തിക്ക് ഒരിക്കലും നമുക്ക് എല്ലാം കാര്യങ്ങളും സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സൗഹചര്യങ്ങളും പഠിക്കാൻ സാധിക്കില്ലാ എന്നൊരു ആ കഥയിലൂടെ ആ ഒരു വൃദ്ധയിലൂടെ ബീര്ബല് ചക്രവർത്തി അക്ബർ ചക്രവർത്തിക്ക് ബീര്ബല് അക്ബര് ചക്രവര്ത്തിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതു പോലെ എന്നാ ആളുകളെല്ലാവരും കുറച്ച് പാലു കൊണ്ട് കൊട്ടാരത്തിൽ വരണമെന്നു പറഞ്ഞു ആ സാ രാത്രിയിലാണെല്ലാവരും രാത്രിയിലൊരു വീപ്പ വെച്ചിട്ടുണ്ട് വെളിയിൽ ആ വീപ്പക്കകത്തെല്ലാവരും ഓരോ ലിറ്റര് പാല് ഒഴിക്കണമെന്നു പറഞ്ഞു ഒരാൾ ചിന്തിച്ചു ആ ആൾ പാല് കൊണ്ടൊഴിക്കുമ്പോൾ നമ്മളറിയുന്നില്ലല്ലോ അതിനാ നമ്മൾ ആ ആളുടെ പാലിനകത്ത് നമ്മൾ വെള്ളമൊഴിക്കും വെള്ളമൊഴിക്കുമ്പം എന്റെ വെള്ളമറിയുന്നില്ലല്ലോ എന്ന ചിന്തയിൽ ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്തു എല്ലാവരും കൊണ്ടുവന്നത് വെള്ളമായിരുന്നു പിറ്റേ ദിവസം അപ്പം സത്യസന്ധരായ ആളുകളേ കണ്ടു പിടിക്കുന്നതിന് അക്ബര് ചക്രവര്ത്തി നടത്തിയൊരു പരീക്ഷണമായിരുന്നു പക്ഷേ അതിൽ ബീര്ബല് ബീര്ബലും അക്ബര് ചക്രവര്ത്തിയോട് തര്ക്കിക്കുന്നുണ്ട് സത്യസന്ധരായ എല്ലാവരും സത്യസന്ധരല്ല പക്ഷേ അക്ബര് ചക്രവര്ത്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രജകളെല്ലാം സത്യസന്ധരാണ് എന്റെ രാജ്യത്ത് കള്ളം പറയുന്നവരാരുമില്ല ചതി പറയ് ചെയ്യുന്നവരാരുമില്ല എന്നു തന്നെയാണ് അക്ബര് ചക്രവര്ത്തി വിശ്വസിച്ചിരുന്നത് പക്ഷേ അതങ്ങനെയല്ല അത് ഇങ്ങനെ അത് എല്ലാ ആളുകളും ഒരുപോലെയല്ല എല്ലാ ആളുകളും സത്യസന്ധരോ ചതി ചെയ്യാത്തവരോ അല്ല എന്ന് അക്ബര് ചക്രവര്ത്തിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ബീര്ബല് കാണിച്ചൊരു തന്ത്രം മാത്രമാണ് ഒരു ബുദ്ധിപരമായ തന്ത്രമായിരുന്നു ഇത് അപ എല്ലാവരും എല്ലാവരും ഇങ്ങനെ ചെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു ഒരാൾ കൊണ്ടൊഴിക്കുന്ന പാലിനകത്ത് ഞാൻ ഒരു കുപ്പി വെള്ളം കൊണ്ടൊഴിച്ചാലാരറിയാനാണ് എന്നു ചിന്തിച്ച് എല്ലാവരും അതുപോലെ തന്നെ ഓരോ കുപ്പി വെള്ളവുമായിട്ടാണ് വന്നത് പിറ്റേദിവസം രാവിലെ അതു നോക്കുമ്പോഴത്തേക്കിനും തീര്ച്ചയായിട്ടും അതിനകത്ത് നിറയെ ആ വീപ്പയില് നിറച്ച് വെള്ളമായിരുന്നു അതില് നിന്ന് രാജാവിനു മനസ്സിലായി തന്റെ രാജ്യത്തും കള്ളവും ചതിയുമൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളൊരു ആ യാഥാർത്ഥ്യബോധം അക്ബർ ചക്രവർത്തിക്ക് കാണിച്ചു കൊടുക്കാൻ ബീര്ബലിനു സാധിച്ചു ഈ കഥകളൊക്കെ ഈ പുസ്തകങ്ങളും ഈ കഥകളും സുഹൃത്തുക്കളും ആയിട്ടൊക്കെ ചർച്ച ചെയ്യുകയും ബീർബലിന്റെ ആ ബുദ്ധിയെ പരസ്പരം ഞങ്ങൾ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കുട്ടികളുമായിട്ടായാലും കുടുംബമായിട്ടായാലും ചര്ച്ച ചെയ്യുകയും കുട്ടികളില് ഈ സൈ ഈ കഥകളൊക്കെ വളരെയധികം അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും അവരുടെ ആ അതിലിലെ ആ സാരാംശം ഉള്ക്കൊള്ളുന്നതിന് അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്